ഈ ഫോണിൻ്റെ നെഗറ്റീവ് എക്സ്പീരിയൻസ്ന്ന് വച്ചാല് ചാർജ് പെട്ടെന്ന് തന്നെ തീരും തീർന്ന് പോകുന്നുണ്ട് നമ്മള് അതുപോലെ തന്നെ ചാർജ് കയറാനും ഒരുപാട് സമയം വേണം ചാർജൊന്ന് ഫുള്ള് ഒരു നൂറ് ശതമാനം ആവാന് അതുപോലെ തന്നെ ഉപയോഗികുമ്പോ പെട്ടന്ന് തന്നെ തീർന്നും പോകുന്നുണ്ട് പിന്നെ പെട്ടന്ന് ചൂട ചൂടാവുന്നുണ്ട് ഫോണ് എന്താന്നറിയില്ല കുറച്ച് ഒരു ഒരുമണിക്കൂർ ഉപയോഗികുമ്പോൾ തന്നെ ചൂടാവുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്നുപറയുന്നത്